അതെ പറയൂ ഓക്കെ ഏത് കേക്കാണ് താങ്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് പറയാമോ ഓക്കെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ബട്ടർ സ്കോച്ച് ഉണ്ട് റെഡ് വെൽവെറ്റ് അത് പോലെന്നെ റെയിൻബോ കേക്കും ഉണ്ട് പിന്നെ സാധാരണ കേക്കുകളും ഉണ്ട് പല ഫ്ലേവറുകളിൽ ഉള്ളത് അത് ഒരു മുന്നൂറ് നാന്നൂറ് റേഞ്ചുള്ള കേക്കുകളാണ് പിന്നെ പ്ലം കേക്കും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആണ് പ്രധാനമായിട്ടും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സാറിന് ഏതാണ് വേണ്ടതെന്ന് പറയുമോ ആ ഓക്കെ സാർ റെഡ് വെൽവെറ്റിന് വന്നിട്ട് ഒരു കിലോ ഗ്രാമിന് തൊള്ളായിരം രൂപ ആണ് ഇവിടെ ഇപ്പോൾ വൺ കെ ജി ടു കെ ജി ആണ് നിലവിൽ ഉള്ളത് അപ്പം അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിക്കുക ആണ് ചെയ്യുന്നത് അപ്പം അതിന് അനുസരിച്ച് അതിനും റേറ്റ് കൂടും അപ്പോൾ ഇപ്പം എത്ര കെ ജി ആണ് വേണ്ടത് ആ ആ സാർ അത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അവൈലബിളാണ് സാർ അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയ്യതി അല്ലേ ഇരുപത്തഞ്ചാം തീയ്യതി എപ്പോഴാണ് ഡെലിവറി ചെയ്യേണ്ടത് ആ ഓക്കെ സാർ രണ്ട് മണിക്ക് എത്തിക്കാം എന്നാൽ ആ അപ്പോൾ അഡ്രസ്സ് ഒന്ന് പറയുമോ ആ അതെ സാർ ഇതേ നമ്പര് തന്നെ ആണ് ആ ആ അതെ സാർ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിളാണ് ആ ഓക്കെ സാർ അപ്പോൾ ഇരുപത്തഞ്ചാം തീയ്യതി കറക്റ്റ് രണ്ടു മണിക്ക് തന്നെ ഞങ്ങൾ അഡ്രസ്സ് ഇട്ടിരുന്നാൽ മതി അതിൽ അയച്ചേക്കാം അപ്പോൾ അപ്ഡേഷൻ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ സാർ താങ്ക് യൂ